നമക്കെല്ലാവർക്കും അറിയണത് പോലന്നെ ഈ വിദ്യാഭ്യാസം വ്യവസായത്തിൽ സാങ്കേതിക വിദ്യ നല്ലൊരു വിധത്തിൽ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത് കാരണം ഇപ്പോഴും ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൂടുതലാൾക്കാരും ചെയ്യുന്നത് ഓൺലൈനായിട്ട് അപേക്ഷകൾ അയക്കുന്നു അത്പോലെ ഓൺലൈനായിട്ട് ക്ലാസ്സ് നടത്തുന്നു അതിനെ യൂട്യൂബിൽ പഠിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങൾ മാത്രല്ല എല്ലാവിധ നല്ല നല്ല നോളജ് കിട്ടുന്ന വീഡിയോസ് കാണാൻ പറ്റുന്നു അതല്ലെ ഓൺലൈനായിട്ട് കോഴ്സുകൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് വരുന്നു ഓൺലൈനായിട്ട് നമുക്ക് ജോലി ചെയ്യാം അതല്ലെ ഓൺലൈനായിട്ട് കോഴ്സുകൾ ചെയ്യാം എല്ലാം നല്ല രീതിക്ക് ഓൺലൈൻ ഒന്ന് ഓൺലൈൻ ഒന്ന് ഇതിലൂടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് അറിവ് നേടാനും കഴിയുന്നുണ്ട് അത്പോലെ നമുക്ക് ഉപകാരപ്രദവുമാണ് പിന്നെ അഡ്മിഷൻ കോളേജിലോ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലൊക്കെ അഡ്മിഷൻ്റെ കാര്യങ്ങളാണെങ്കിപ്പോലും ഓൺലൈൻ വഴിയാണ് നമ്മൾ അഡ് അഡ്മിഷന് വരെ ബുക്ക് ചെയ്യുന്നത് പിന്നെ ഈ ബുക്സ് റിസർച്ച് അങ്ങനെ എല്ലാം ഈ തുടങ്ങിയവ എല്ലാം വളരെ അധികം ഉപകാരപ്രദമേറിയ കാര്യങ്ങളൊക്കെ തന്നാണ് ഇപ്പം നമുക്കൊരു ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അത് ലൈബറി പോയി എടുത്ത് തെരഞ്ഞെടുത്ത് വായിക്കേണ്ട കാര്യം ഇല്ല നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഗൂഗിളിൽ സർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ബുക്കിൻ്റെ ഡീറ്റെയിലെല്ലാം അത്പോലെ സ്റ്റോറി അത് എയുതീരിക്കുന്നത് എ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെ നമുക്ക് ബുക്ക് വരെ ഗൂഗിളിൽ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിൽ നോക്കി വായിക്കാം അത്പോലെ തന്നെ ഇപ്പം അത്പോലെ തന്നെ ഇപ്പം മ്യൂസിക് അത്പോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നമുക്ക് എന്താണോ ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എന്താണോ ആവശ്യം അതെല്ലാം നമ്മൾ സർച്ച ചെയ്താൽ ഓൺ ദ സ്പോട്ടിത്തന്നെ നമുക്ക് കിട്ടാണ് അത്രയേറെ ഉപകാരപ്രദമാണ് ഈയൊരു സാങ്കേതിക വിദ്യാന്ന് പറയുന്നത്